അങ്ങനെ ഒരു അവസരം ലഭിച്ചാല് അതായത് ഇന്ത്യയിലെ അല്ലെങ്കില് നിങ്ങളുടെ സംസ്ഥാനത്തിലെ കലാരൂപങ്ങളില് മറ്റു രാജ്യക്കാര്ക്ക് കാണിക്കണമെന്നുള്ള ഒരവസരം നല്കുകയാണെങ്കില് എനിക്കേറ്റവും കൂട്തല് കാണിക്കാനുള്ളത് ഞങ്ങളുടെ ഉത്സവമായിട്ടുള്ള ഉത്സവമല്ല ഞങ്ങളുടെ കല സ്വന്തം കലാരൂപമായിട്ടുള്ള കേരളത്തിന്റെ തനതായ കഥകളിയേയും മോഹിനിയാട്ടത്തെയും കാണിക്കാനാണ് എനിക്കേറ്റവും ഏറെയിഷ്ടം അത് നമ്മുടെ കണ്ണിന് കുളിർമ്മ നല്കുന്നതും മാത്രമല്ല കേരളത്തിന്റെതായ എല്ലാ പൗരാണിക ചിന്തകളും വിഷയങ്ങളും അതിനകത്ത് ഉള്പ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവര്ക്ക് വേണ്ടി അതിനെ അതിലൂടെ നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയാനും കേരളത്തിന്റെ സംസ്കാരത്തെയും തനത് സൗന്ദര്യത്തെയും നമുക്ക് വിളിച്ചോതുവാന് കഴിയുന്ന കലാരൂപങ്ങളാണ് കഥകളിയും മോഹിനിയാട്ടവും കൂടാതെ കൂടിയാട്ടം പടയണി അങ്ങനെ വിവിധ കലാരൂപങ്ങള് വേറെയും ഉണ്ട് അവസരം കിട്ടുവാണെങ്കില് എല്ലാം കാണിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഞാന് കൂടുതലായിട്ടൊന്നും ഇതിനെ പറ്റി ഞാന് പഠിച്ചിട്ടില്ല എനിക്കറിയില്ല പക്ഷെ കാണാനും ആസ്വദിക്കാനും വളരേയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാന്